നിലവിലുള്ള ചെടികളിൽ നിന്ന് നമ്മൾക്ക് കൂടുതൽ ഉൽപാദിപ്പിക്കാനയിട്ട് നമ്മൾ പരമാവധി ചെയ്യേണ്ടത് അതിനെ എല്ലാ ദിവസവും നല്ല പോലെ അവരെ ശുശ്രുഷിക്കുക നല്ല രീതിയിൽ ശുശ്രുഷിക്കുക പിന്നെ നമുക്കവർക്ക് വേണ്ട വളങ്ങളും ഇപ്പോൾ നമ്മളിപ്പോൾ ആ ചെടീനെ സൂര്യൻ കിട്ടാത്തൊരു സ്ഥലത്താണ് സൂര്യൻ അധികം അടിക്കാത്ത സ്ഥലത്താണെങ്കിലും അവർക്ക് വെയിൽ കിട്ടിയില്ലെങ്കിലും അവരുടെ ഓരോ ചെടികളുടെ ഓരോ പ്രൊസസ്സ്ന് തടസ്സം വരുത്തും സൊ നമ്മളതൊക്കെ നോക്കി നല്ല രീതിയിൽ ല് എല്ലാം കിട്ടണ രീതിയിൽ നമ്മളതിനെ പരിപാലിച്ചാൽ നമുക്ക് നല്ല ഉത്പാദനം കിട്ടും നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കാനൊക്കെ മടി കാണിച്ചിരുന്നഴിഞ്ഞാൽ അതിൻ്റെ ഉൽപാദനത്തിൽ അതിൽ നല്ല വ്യത്യാസം വരുകയും ചെയ്യും അതിന് വേണ്ട എനർജിയും ഫുഡൊന്നും കിട്ടാണ്ടാവുമ്പോൾ അതിൻ്റെ ഉൽപാദനത്തിന് വ്യത്യാസം വരും പക്ഷേ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാണെങ്കിൽ അതിന് ആവശ്യത്തിന് വേണ്ട വെയിലും ആവശ്യത്തിന് വേണ്ട വെള്ളവും ആവശ്യത്തിന് വേണ്ട വളവും ചിലപ്പോൾ നമ്മുടെ മണ്ണ് നമ്മൾ വെച്ചേക്കണ മണ്ണധികം നല്ല ഫെർട്ടൈൽ വെള്ളം വെ മണ്ണല്ലങ്കിൽ അതിന് കുറച്ച് വളങ്ങൾ ലൈക്ക് ചാണകം ഉണക്കിയ ചാണകം ചകിരി അതൊക്ക നല്ല പോലെ മണ്ണിൽ ചേർന്ന് ചെടീനെ നല്ല പോലെ വളരാൻ സഹായിക്കുന്നൊരു ഓരോരോ ഇൻഗ്രീഡിയൻസാണ് സൊ നമ്മളതൊക്കെ ആഡ് ചേർത്ത് നമ്മളതിനെ നല്ല പോലെ പരിപാലിക്കണം അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നല്ലൊരു ഉൽപാദനം ഉണ്ടാവും നമ്മളിപ്പോൾ പച്ചക്കറിയിലാണെങ്കിൽ നല്ല പോലെ അതിനെ പരിപാലിക്കേണ്ടിയും അതിനിപ്പോൾ ചിലപ്പോൾ ഓരോ ചെടികളാകുമ്പോൾ ചിലപ്പോൾ അതിൽ കരിഞ്ഞ് പോകേം ഓരോരോ പ്രാണികൾ വന്ന് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും നമ്മളൊക്കെ നമ്മളപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അപ്പോഴാണ് അതിന് അതിനൊക്കെ പ്രതിരോധിച്ച് നമുക്ക് അതിന് അതീന്ന് വരുന്ന ഫലങ്ങൾ നല്ല പോലെ വ അതിന് സൃഷ്ടിക്കാൻ പറ്റുള്ളു സൊ നമ്മളതൊക്കെ നല്ല പോലെ നോക്കിയാൽ എന്തായാലും നമുക്ക് നല്ലൊരു ഉൽപാദനമുണ്ടാവും എല്ലാ ചെടികളിൽ നിന്നും ഇപ്പോൾ പൂക്കളായാലും നമ്മൾ നല്ല പോലെ ചെടീനെ നോക്കി കഴിഞ്ഞാൽ നല്ല പോലെ പൂക്കൾ പൂക്കേം ചെയ്യും നല്ല കട്ടിയിൽ നല്ല തിക്ക്നസ്സിൽ ഫുള്ള് പൂക്കളൊക്ക വന്ന് പൂക്കും അല്ലെങ്കിപ്പം അതിനെ മര്യാദക്ക് ശുശ്രൂഷിക്കാതെ ഒരു പൂവന്ന് അത് ഉണങ്ങി പോയി അങ്ങനായിരിക്കും നല്ല പോലെ സൂക്ഷിച്ചാൽ കുറെ പൂക്കൾ വന്ന് നല്ല ശോഭിച്ച് ഭംഗിയായിട്ടിരിക്കും സോ നമ്മൾ നല്ല പോലത് പരിപാലിക്കുക അപ്പോൾ എല്ലാത്തിനും നല്ല ഉൽപാദനമുണ്ടാകും പച്ച് പൂക്കളിലായാലും പച്ചക്കറികളിലായാലും എന്തിലായാലും അങ്ങനന്നെയുണ്ടാകും